ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശമാണെന്ന് തന്നെ പറയണം കാരണം ഇവിടെ എല്ലാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടി ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം എന്നുപറയുമ്പോള് മാർക്ക് വാങ്ങിക്കുക മാർക്ക് വാങ്ങിക്കുക മാർക്ക് വാങ്ങിക്കുക എല്ലാം എ പ്ലസ് കോളേജിൽ കയറി കഴിഞ്ഞാൽ എല്ലാത്തിനും ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചുവരുന്നു എ പ്ലസ് ഫുൾ എ പ്ലസ് വാങ്ങിച്ചു വരുന്ന കുട്ടിയോട് ഡിഗ്രിക്ക് കോളേജിൽ വന്നിട്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞാലവനറിയില്ല ഫ്രം ഏത് ടൂ ഏത് എങ്ങനെ എഴുതണമെന്ന് അവനറിയില്ല ഡിഗ്രിക്ക് എല്ലാം ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ചു ചിലപ്പോള് റാങ്കുമായിരിക്കാം വാങ്ങിച്ചു പി ജിയിലോട്ടു വന്നു ഒരു ഒരു ക്വസ്റ്റ്യൻ ചെ ഇട്ടു കൊയ് കൊടുത്താൽ അവനറിയില്ല അതെന്തിനാന്ന് അതുകഴിഞ്ഞാല് അവൻ ചോദിക്കുന്നതെന്താണ് ഇതെന്തിനാണ് ഞങ്ങൾ പഠിക്കുന്നത് പി ജിക്ക് ഞങ്ങൾ ഇത്രയും പഠിക്കുന്നു മിസ്സെ എന്തിനാ പഠിക്കുന്നെ ഇതെവിടോട്ടാ എന്തിനുവേണ്ടിട്ട കൊണ്ടുപോന്നേ അവനറിയില്ല പിന്നെ സപ്പോസ് പി ജിയും കഴിഞ്ഞു പി ജിക്ക് റാങ്ക് ഹോൾഡർ എന്ന് വച്ചോളൂ ആ കുട്ടി ഒരു ഇൻറർവ്യൂവിനു പോകുന്നു അതിനോട് ബേസിക് മാത്സ് ചോദിച്ചാല്പ്പോലും ചിലപ്പോള് ആ കുട്ടിക്ക് പറയാനറിയില്ല അതാണ് അവസ്ഥ പക്ഷേ നമ്മുടെ രാജ്യത്ത് അല്ലാതെ പുറത്തുള്ള രാജ്യങ്ങളിലാണെന്ന് വച്ചാൽ അവിടെ എനിക്കോന്ന് ഇത്രയും ഈ സ്കൂൾ സു സ്പൂൺ ഫീഡിങ് അതായത് ഈ കോളേജ് ക്ലാസ് റൂം വിദ്യാഭ്യാസം കുറവായിരിക്കാം പക്ഷേ ആ കുട്ടി ഒരു ഇൻറർവ്യൂന് പോയാൽ അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യും നമ്മുടെ ഇവിടുന്നുള്ള ഒരു കുട്ടി പോകുന്നതിനേക്കാളും കൂടുതൽ അന്യരാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് വൈ ഇവിടെയുള്ള കുട്ടികൾ ക്ലാസ് കഴിഞ്ഞു അവര് ഹയർ സ്റ്റഡീസ് എന്നും പറഞ്ഞ് പുറത്തോട്ട് ചാടുന്നത് അതിനാണ് കാരണം അവർക്ക് തന്നെ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മോശമായ അവസ്ഥ അവർക്ക് മനസ്സിലാവും എപ്പോഴാണ് ആഫ്റ്റർ പി ജി ഏകദേശം അല്ലെങ്കിൽ ആഫ്റ്റർ യൂ ജി കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് അപ്പോഴതിന് നമ്മൾ ചെയ്യേണ്ടത് മെച്ചപ്പെടുത്തേണ്ടത് ഒറ്റ കാര്യമേയുള്ളൂ എല്ലാം നമ്മൾ അപ്ലൈഡ് ലെവലിലോട്ട് കൊണ്ടുവരിക ഏത് സ്കൂൾ ലെവൽ മുതല് സ്കൂൾ തലം മുതല് എല്ലാ സബ്ജക്ടും എല്ലാ സബ്ജക്ടുകളും അപ്ലൈഡ് ലെവലിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ സംവിധാനങ്ങൾ കുറച്ചും കൂടി മാറും പിന്നെ എല്ലാം ഇങ്ങനെ ക്ലാസ് റൂം ടീച്ചിങ്ങിലോട്ട് മാറ്റാതെ അവരെ സ്വയമായി അവരെ ചെയ്യാനും അവരെ സ്വയം ആയിട്ട് അവരോട് തന്നെ ഇൻവോൾവ് ചെയ്യാനും വേണ്ടി നമ്മൾ പഠിപ്പിക്കുക പഠിപ്പിക്കുമ്പോള് അവന് സ്വയം ഒരു ഇൻറർവ്യൂവിന് ഫേസ് ചെയ്യാനും ഒരു റാങ്ക് വാങ്ങിച്ച കുട്ടിക്ക് ഒരു ഇൻറർവ്യൂവിന് പോവാൻ നേരത്തവൻ കിടുകിടാ വിറയ്ക്കും പേടിയാണ് പക്ഷേ വെളിയിലുള്ളതോ ഒരു എ ഗ്രേഡ് വാങ്ങിച്ച കുട്ടിയായിരിക്കും പക്ഷേ അവൻ ഇൻറർവ്യൂ കൂളായിട്ട് പോയി അറ്റൻഡ് ചെയ്യും അപ്പോള് അതൊക്കെ എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മള് അവർക്ക് ചെയ്തുകൊടുക്കുന്ന അവരുടെ ആ ടീച്ചിംഗ് അപ്രോച്ചാണ് അപ്പോള് ആ രീതിയിലോട്ട് നമ്മൾ കുറച്ചുംകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിംഗ് മെത്തേഡ്സ് വന്നുകഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ല നല്ല രീതിയിൽ മാറ്റം എന്നുവച്ചാൽ നല്ലൊരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം